ഹലോ ഹലോ

സ്ഥലമാണോ ആ ഓക്കേ ഓക്കേ സ്ഥലം ഇവിടിപ്പുള്ളത് കുറുമ്പലക്കോട്ട പിന്നെ പക്ഷി പാതാളം അങ്ങനത്തെ ഏരിയാസൊക്കെയുണ്ട് ആ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അതായത് പക്ഷി പാതാളം ആ സ്ഥലങ്ങളൊക്കെ അടിച്ചിട്ടേക്കുവാണ് അവിടൊക്കെ നമുക്ക് കയറ്റി വിടില്ല ഇപ്പോൾ കാരണം അട്ടയും കാര്യങ്ങളൊക്കേ ആയതുകൊണ്ട് പിന്നെ വല്ലാണ്ട് ചെടികളും കാര്യങ്ങളും മരങ്ങളും എല്ലാം വളർന്നത് കൊണ്ട് അത് നടക്കൂല പിന്നെയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുമ്പലക്കോട്ടയ്ക്ക് കുഴപ്പമില്ല പിന്നെ നമുക്ക് ഈ വാട്ടർ ഫാൾസില്ലേ മീൻമുട്ടി അങ്ങനത്തേലൊക്കെ അവിടെയൊക്കേ കയറ്റിവിടുന്നുണ്ട് പിന്നെ ചെമ്പ്ര പീക്ക് ഇപ്പം കുറച്ച് ദിവസമായിട്ട് തുറന്നിട്ടുണ്ട് ഓ ഡാമിലേക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല

ടൂ ഡേയ്സിനുള്ളിലാണ് ഏയ് ഇല്ല റിസേർവ് ചെയ്യണ്ട അവശ്യമൊന്നുമില്ല ആ ആ വണ്ടി ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ ജീപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കുറച്ച് ദൂരം ഉണ്ടാവുകയുള്ളു അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നടന്ന് കയറണം ആ അപ്പം അത് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും ഇല്ല മഴ വലിയ കാര്യമായിട്ട് മഴയൊന്നുമില്ല ഇപ്പം മഴ ലേശം കുറവുണ്ട് ഇന്നലെ വരെ മഴയുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫോർ വീൽ ജീപ്പായതുകൊണ്ട് നമുക്കങ്ങോട്ട് കയറാം കുഴപ്പമില്ല ആ ഓക്കേ വന്നു വിളിച്ചാൽ മതി ആ റൂമുണ്ട് റൂമ് നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യണുണ്ട് അത് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്താൽ മതി ഇപ്പോൾ വണ്ടിക്ക് നമുക്കൊരാൾക്ക് എഴു അതായത് മൊത്തം ടോട്ടല് നമുക്ക് ഇപ്പം നമുക്ക് ഒരു സ്ഥലത്ത് മാത്രമാണെങ്കിൽ എഴുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പം ഇത്രേം സ്ഥലങ്ങൾ കാണണ്ടെ കൊണ്ട് അതിനനുസരിച്ച് പേയ്മെൻറ്റ് വരും ഇപ്പം ഡീസൽനൊക്കെ വില കൂടിയതുകൊണ്ട് കുറച്ചുംകൂടെ പേയ്മെൻറ്റ് കൂടിയിട്ടുണ്ട് ആ അപ്പം അതൊന്ന് നോക്കണം പിന്നെ വേറെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏ ഫുഡ്ഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ തന്നെയുണ്ട്

ആ ആ ഓക്കെ എന്നാൽ